എനിക്ക് കലാസാധനങ്ങൾ അപ്സര അപ്സരയുടെ പെൻസിൽസ് പേന എല്ലാ സാധനവും അപ്സരയുടേതാണ് ഞാൻ ഉപയോഗിക്കാറ് കാരണം കുറച്ചും കൂടെ കൃത്യത വരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ കൃത്യതയും ഷെയ്ഡൊക്കെ കൊടുക്കുന്നതും വളരെ കൃത്യമായ രീതിയിലാണ് നമുക്ക് ചെയ്യാനും പറ്റുന്ന ഒരു ബ്രാൻഡ് അപ്സരയുടെ അപ്സരയുടെ ഐറ്റംസാണ് അപ്സരയുടെ സാധനങ്ങൾ അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ട് വില കുറച്ച് കൂടുതലാണെങ്കിലും നല്ല രീതിയിലുള്ള ക്വാളിറ്റി തരുന്നൊരു പ്രൊഡക്സാണ് അപ്സരയുടെ അത്യാവശ്യം നല്ല സാധനങ്ങൾ ആണ് കുഴപ്പം ഒന്നും ഇല്ല നല്ല രീതിയില് വരയ്ക്കാനും എഴുതാനും ഷെയ്ഡ് കൊടുക്കാനും മാർക്ക് ചെയ്യാനുമൊക്കെ പറ്റും അപ്പം പേനയായാലും പെൻസിലായാലും ബ്രഷസായാലും പെയിൻറ്റ്സായാലും ഏത് സാധനമായാലും ഇപ്പോൾ കളറൊക്കെയാണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള കളറാണത് പെട്ടെന്ന് പരക്കുകയൊന്നുമില്ല അത് നമ്മൾ കൃത്യമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്സരയുടെ എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെയാണ് കൂടുതലായിട്ടും കുറേയായിട്ടും വർഷങ്ങളായിട്ടും ഉപയോഗിക്കുന്നത് അപ്സരയുടെ പെൻസിൽസ് പെൻസ് ബ്രഷസ് കളേഴ്സ് എല്ലാം അപ്സരയുടേതാണ് ഉപയോഗിക്കാറ് സ്കെയിൽ പോലും അപ്സരയുടേതാണ് അത്രക്കും പെർഫെക്റ്റാണ് അപ്സരയുടെ സാധനങ്ങള് നല്ല പെർഫെക്ഷൻ തരും വർക്ക് ചെയ്താല് അതാണ് അപ്സരയുടെ ഒരു നല്ല നല്ല ഗുണം എന്ന് പറയുന്നത് ഞാൻ അപ്സരയുടെ ഒരു ഫാനാണ് ഞാൻ അപ്സരയാണ് ഉപയോഗിക്കാറ്